കുടുംബത്തിലെ സ്ത്രീകള് മത്സ്യബന്ധനത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കില് അവര് അതായത് വല നെയ്യാനും പിന്നെ അതുപോലെ മീൻ കുറെ ഇങ്ങനെ അതായത് മുക്കുവന്മാര് പോയിട്ട് മീൻപിടിച്ചു വരുമ്പം കുറെ ഇങ്ങനെ അതായത് പല പല മീനുകളായിരിക്കുവല്ലോ അതൊക്കെ വേർതിരിച്ചെടുക്കാനും പിന്നെ അതായത് അതിൻ്റെ ക്യാഷ് ഡീലിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കും പിന്നെ അവരെന്തുകൊണ്ടാണ് കടലിൽ പോകാത്തത് എന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇപ്പം പുരുഷൻമാര് അതായത് അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസുണ്ടാവും പിന്നെ അതായത് കടൽക്ഷോഭം അങ്ങനെയൊള്ളതൊക്കെ വരുമ്പം അവര് പിടിച്ചുനിൽക്കുന്നത് പോലെ നമുക്ക് നില്ക്കാൻ പറ്റില്ല പിന്നെ അതിനുള്ള ശക്തിയും ശേഷിയും ഉണ്ടാവില്ല പിന്നെ ഒന്നാമത് അവരെ അപേക്ഷിച്ച് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പം അതായത് നല്ലത് പിന്നെ അതേപോലെ കുടുംബത്തില് അതായത് ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ഭർത്താവ് പോകുമ്പോൾ വീട്ടിലാരും ഉണ്ടാവുക ഇല്ലല്ലോ മക്കളെ നോക്കണം അങ്ങനെയുള്ള മക്കളെ നോക്കണം മക്കള് വിശന്നാൽ കൊടുക്കണം പിന്നെ അവരെ സ്ക്കൂളിൽ വിടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും സ്ത്രീകള് തന്നെ വേണമല്ലോ പുരുഷന്മാര് അതൊന്നും ചെയ്യില്ല അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതുകൊണ്ടാണ് മെയിനായിട്ട് അവര് പോകാത്തത് കടലില്